ഇപ്പം ഇന്ത്യയുടെ വിവിധതരം പ്രദേശങ്ങളില് മലയാളം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളം മലയാളികള് ഉള്ള സ്ഥലങ്ങളൊക്കെയാണെങ്കിൽ മലയാളഭാഷ എന്തായാലും ഉണ്ടാകും കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് മലയാളികള് തിങ്ങി പാർക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ ബാംഗ്ലൂർ ഉണ്ട് ബാംഗ്ലൂരെന്ന് പറഞ്ഞാൽ കർണാടക ഒരു സ്ഥലമാണ് ഒരു സിറ്റിയാണ് ബാംഗ്ലൂരൂർ എന്നുപറഞ്ഞു കഴിഞ്ഞാല് ഇവിടൊക്കെ ഇഷ്ടംപോലെ മലയാളികള് അതായത് വർക്കിന് ആണെങ്കിലും പഠിക്കാൻ ആണെങ്കിലും പണിക്കു പോവാൻ ആണെങ്കിലും അങ്ങനത്തെ പല പല രീതിയിലുള്ള പരിപാടികൾക്കൊക്കെ അവിടെ പോകാറുണ്ട് അപ്പോൾ അവിടെക്കേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മലയാളഭാഷ നല്ല രീതിയില് അറിയാവുന്ന ആൾക്കാരൊക്കെ അവിടെയാണ് ഇണ്ടാവുക പിന്നെ അവർക്ക് കൂടുതലായിട്ടും മലയാളഭാഷ ആയിരിക്കും കൂടുതലായിട്ടും അറിയുക അവര് അവിടെ മലയാളികള് ഇഷ്ടം പോലെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം പറ്റും ഇന്ത്യയുടെ പലസ്ഥലങ്ങളിലും ഇപ്പോൾ തമിഴ്നാട്ടിൽ ആണെങ്കിലും തമിഴ്നാട്ടിൽ ഉള്ളവർക്കാണെങ്കിലും മലയാളവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ തമിഴ്നാടും എന്താ പറയുക തമിഴ്നാടും പിന്നെ നമ്മുടെ കേരളം തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ലാംഗ്വേജിൻ്റെ കാര്യത്തില് നമുക്ക് മലയാളം ഏകദേശം സെയിം പോലെ നമുക്ക് തോന്നും തോന്നുമൊക്കെ ചെയ്യും നമുക്ക് മനസ്സിലാവുകയും ചെയ്യും തമിഴ് പഠിക്കാൻ വേഗം നമുക്ക് പറ്റും